കുട്ടിക്കാലത്ത് നമ്മൾ നമ്മുടെ ചേട്ടന്മാരുടെ കൂടെ നമ്മൾ ചൂണ്ടയിടാൻ പോകും ചൂണ്ടയിടുക ചൂണ്ടയിടുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ പള്ളത്തിൾ അങ്ങനെയുള്ള മീൻ കിട്ടും അതുപോലെത്തന്നെ കുട്ടിക്കാലങ്ങളിൽ നമ്മൾ കൃഷി കഴിഞ്ഞ് കണ്ടത്തിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും അങ്ങനെ നമ്മൾ ഈ രണ്ട് വാഴത്തണ്ടിൻ്റെ രണ്ട് ഇത് മടൽ വെട്ടും അതിൻ്റെ ഇലകളഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ച് പുല്ലടി വെക്കും പുല്ലടി എന്ന് പറഞ്ഞാൽ രണ്ട് കൈകൊണ്ട് ഇതിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഈ നിഴൽ വരുമ്പോൾ ഈ മത്സ്യം നേരെ ചെന്ന് ചേറിനകത്ത് പൂണ്ടിരിക്കും അപ്പോൾ നമ്മള് ഈ മത്സ്യത്തെ ഒരു കൈകൊണ്ട് പിടിക്കുന്നു നമ്മൾ പിടിച്ചു കഴിഞ്ഞ് നമ്മൾ നമ്മൾ കൊണ്ടുപോയ പാത്രത്തിലും എവിടെയാണോ നിക്ഷേപിക്കും അങ്ങനെയാണ് നമ്മൾ മത്സ്യബന്ധനം കൂട്ടിക്കാലം നമ്മൾ പഠിച്ചത് കണ്ടു പഠിച്ചത് ഇപ്പം പിന്നെ പ്രായമാ പ്രായമായിരുന്നപ്പോൾ നമ്മൾ അച്ചായന്മാർ വീശാൻ പോകുമ്പോൾ നമ്മൾ മീൻ കളക്ട് ചെയ്യാനുള്ള ഒരു പാത്രം നമ്മുടെയിൽ ഉണ്ടാവും അല്ലെങ്കിൽ തീറ്റി നമ്മുടെയിൽ ഉണ്ടാവും തീറ്റയിടും തീറ്റയിടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അടയാളം വെക്കുന്നത് നമ്മളായിരിക്കും ആ ഭാഗങ്ങളിലായിരിക്കും നമ്മൾ മുതിർന്നവരായിട്ടുള്ള നമ്മുടെ അച്ചായനോ ചേട്ടന്മാരോ അവരൊക്കെ നമ്മളെ ഈ പഠിപ്പിക്കും പിന്നെ അവരെ കൂടെ നമ്മളെ കൊണ്ടുപോണെ അപ്പോൾ അവർ കാണിക്കുന്ന രീതികളൊക്കെയുണ്ട് ചിലപ്പം തീറ്റി ഇടുന്നടുത്തേക്ക് രണ്ടുമൂന്ന് കൊക്കകളൊക്കെ പെറുക്കിയിടും കൊക്കയ്ക്കുള്ള പ്രത്യേകത തിളങ്ങിക്കൊണ്ടിരിക്കും വെള്ളത്തിലിങ്ങനെ തിളങ്ങുന്ന സമയത്ത് മീനുകൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഓടിവന്ന് അതിനെ നോക്കാറുണ്ട് ആ സമയം നോക്കിയൊക്കെയാണ് നമ്മൾ ഇവർ വലയെറിയുന്നതായിട്ട് കാണുന്നത് ചിലർ ചെറിയ കമ്പികഷ്ണമുണ്ട് ആ കമ്പി കഷ്ണം വെള്ളത്തിൽ ആ ഞ്ഞടിക്കുമ്പോൾ ഡ്ർ എന്നൊരു ശബ്ദം വരും ആ ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ശബ്ദത്തിൽ മറ്റ് മത്സ്യങ്ങൾ അവിടേക്ക് വരും ഓടി പോവുകയല്ല വരും ആത് ഒരു വിദ്യയാണ് പിന്നെ ചിലയിടത്ത് ഇങ്ങനെ മൂന്നുനാലഞ്ച് കരിങ്കല്ലുകൾ കൂട്ടി വെച്ചിട്ട് വെള്ളത്തിനടിയിൽ തന്നെ അവിടെ കവടമ്മ കവളം മടൽ നമ്മുടെ തെങ്ങിൻ്റെ കവളം മടൽ എടുത്ത് കുത്തി നാട്ടിവെക്കും അതിനകത്ത് കപ്പ ഇട്ടേക്കും അപ്പോൾ നമ്മൾ പിന്നീട് ഒരു മണിക്കൂർ വെള്ളം വന്നു കഴിഞ്ഞ് വീശാൻ നിന്നാൽ കരിമീൻ പോലുള്ള വലിയ മീനുകൾ അത് കൊത്തിക്കൊത്തി കൊത്തി അവിടെ നിൽക്കും അത് നമ്മൾ വീശിയിട്ട് ഇറങ്ങി മുങ്ങി എടുക്കണം അങ്ങനെയാണ് ചില വിദ്യകളൊക്കെ നമ്മൾ ഇവരിൽനിന്ന് പഠിച്ചിട്ടുണ്ട്